എരിക്കിൻ്റെ ഇല എണ്ണയിൽ ചൂടാക്കി മുട്ടിൽ തൂത്തു കൊടുക്കുക വിവിധ ഇനം പച്ചമരുന്നുകളുടെ ഇല ചേർത്ത് കിഴിയുണ്ടാക്കി കടുകെണ്ണയിൽ ഉപയോഗിച്ച് ചൂടാക്കി മുട്ടിൽ കിഴി കുത്തുക അതുകൂടാതെ തന്നെ പുളിയില ഇട്ട് വെള്ളം തിളപ്പിച്ച് മുട്ടിൽ ധാര കോരുക ഇതൊക്കെയാണ് നമുക്ക് മുട്ട് വേദനയ്ക്ക് ചെയ്യാൻ കഴിയുന്നൊരു സാധാനം പിന്നെ ആയുർവേദ ഷോപ്പുകളിൽ കണ്ടുവരുന്നരു തൈലം ഉണ്ട് സർവമർമ്മ തൈലം ഉപയോഗിച്ച് നമുക്ക് മുട്ടിന് കുറച്ച് നേരം മസാജ് ചെയ്യുകയാണെങ്കിൽ അതിനും മുട്ടുവേദനയ്ക്കൊരു ശമനം ഉണ്ടാവുന്നതാണ് അതുകൂടാതെ തന്നെ എരിക്കിൻ്റെ ഇല ഉപയോഗിച്ച് ചെയ്യാം വിവിധ ഇനം പച്ച മരുന്നുകളുടെ ഇല ഉപയോഗിച്ച് കിഴി ഉണ്ടാക്കിയിട്ട് മുട്ടില് കിഴികുത്തുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ മാറുന്നതായിരിക്കും പുളിയില ഇട്ട് വെള്ളം തിളപ്പിച്ച് ധാര കോരിയാലും പെട്ടെന്ന് മാറുന്നതാണ് ഇതെല്ലാം വേണ്ടതാണ് കിഴികുത്തുന്ന കാര്യം പറയുവാണെങ്കിൽ അതില് പല ആയുർവേദ മരുന്നുകളുണ്ട് അതെല്ലാം ഉപയോഗിക്കേണ്ടതാണ്